അ ആ സാറേ നമ്മുടെ എൻ്റെ എൻ്റെ എൻ്റെ വീട് ചെട്ടിപുഴയാണ് വക്കച്ചമ്പടിന്ന് പറയും അപ്പോൾ എനിക്ക് പുതിയൊരു വീട് ഞാൻ വക്കച്ചമ്പടി വക്കച്ചമ്പടി അതായത് സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ടു വരുവേ അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീട് വച്ചതാണ് പുതിയ വീട് വച്ചതാണ് അപ്പം എനിക്കൊരു കണക്ഷനെ വീട്ടിലേക്കുള്ളൊരു ഹൗസ് കണക്ഷന് വേണ്ടിയാണ് ഞാൻ ഈ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസീജേഴ്സ് അ ട്രാൻസ്ഫോമർ നമ്മുടെ തെങ്ങണ തെങ്ങണ തെങ്ങണ ബ്രാഞ്ചിൻ്റെ ട്രാൻസ്ഫോർമറാണ് നമ്മുടെ ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ആ ഒരു പോസ്റ്റ് ഇടേണ്ടി വരും കാരണം ഒരു ചെറിയ നടപ്പാതയാണ് അതിൽ കൂടി വേണം ഈ ലൈൻ വലിച്ചു വരാൻ അപ്പം അതിൻ്റെ പ്രോസിജേഴ്സ് എങ്ങനാണെന്നൊന്ന് പറഞ്ഞ് തരാവോ എന്തൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്യണം എലെക് ആ എലെക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ നമുക്ക് ലൈൻ കിട്ടിയാൽ മതി അപ്പം അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ഓഫീസിലെന്തക്കെ കൊണ്ടു വന്ന ഡോക്യൂമെൻസ് കൊണ്ട് വരേണ്ടത്

കൺവീൻ നമ്പറുണ്ട് അപ്പം പഞ്ചായത്തീന്ന് ഇട്ടതാണ് ഇട്ടതാണ് അപ്പം പഞ്ചായത്തീന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് മേടിക്കണായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ നമ അത് പിന്നെ അത് സാറേ വന്ന് നോക്കണം കാരണം നമുക്ക് നടപ്പാതയാണ് എനിക്ക് തോന്നുന്ന് രണ്ട് പോസ്റ്റുകൾ ഇടാൻ വേണ്ടി വരുവായിരിക്കും അപ്പം അതൊന്ന് വന്ന് ആ ഈയൊരു ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഞാൻ ബി ബി പി എൽ ആണ് ബി പി എൽകാരിയാണ് അപ്പം ഞങ്ങൾക്ക് കുറയുമായിരിക്കും ഇത്തിരി പൈസ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങൾ ഓഫീസി വന്ന് തിരക്കണം അല്ലേ ഓക്കെ ഓക്ക് ആ അത് ഞാൻ സാറേ വന്ന് തിരക്കാം അപ്പം ഞമ്മൾ ഞമ്മൾ കാണണ്ടേ അവിടെ വന്നിട്ട് എ എസ് സിയെ വന്ന് കാണണോ അതോ എ ഈയെ എ ഈയെ വന്ന് കാണണോ ഓവർസിയർ ഓവർസിയറിൻ്റെ പേരെന്നാണ് സാറേ ഷാജിന്നാണോ ആ അപ്പം ഞാനവിടെ വന്ന് അവരെ നിങ്ങളെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ മതിയല്ലേ ആ അപ്പം ഞാൻ പഞ്ചായത്തീന്ന് റെസിഡെൻഷ്യൽ സർട്ടിഫിക്കറ്റും എൻ്റെ ആധാറിൻ്റെ കോപ്പിയും നമ്മുടെ ആധാരത്തിൻറ്റേയോ അങ്ങനെയുള്ള കോപ്പിയൊന്നും വേണ്ടായിരിക്കും അല്ലോല്ലേ കരം അടച്ച രസീതിൻ്റെ കോപ്പിയും വേണമായിരിക്കും അല്ലേ ആ ആ അപ്പോൾ അതെല്ലാവായിട്ട് ഞാൻ നേരെ നാളെത്തന്നെ വന്നു പിന്നെ എ ഈയെ കണ്ടോളാം അല്ലെങ്കിൽ സാർ ഓവർസീയറിനെ കണ്ടാൽ മതിയല്ലോ ഓവർസീയറിനെ കണ്ട് കാര്യങ്ങളപ്പോൾ ആ ഓക്കെ ഓക്കെ എനിക്കത് പെട്ടന്ന് ആ നമുക്കൊന്ന് പെട്ടന്ന് കിട്ടണം നമുക്ക് കയറിത്താമസം ആണേ കയറിത്താമസിക്കാൻ വേണ്ടിയാണ് ഇത് ലൈറ്റ് അഞ്ച് ദിവസം അല്ലേ ആ അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പോസ്റ്റ് ഇടേണ്ടതല്ലേ അതെല്ലേ ആ ഓ ആ ഓ ഓക്കെ ഓക്കെ ഓ കയറി താമസം മേടിച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ അഞ്ചാം തീയതിയാണ് സാറേ ആ അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ